ഹലോ ആ ഇത് ഡോക് ഡോക്റ്ററല്ലേ ആ ഡോക്ടറേ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതായിരുന്നു എൻ്റെ ബ്രദറിനിപ്പോൾ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയേ ഉള്ളൂ അപ്പോൾ പെട്ടന്നവനെന്തോ നെഞ്ച് വേദനയാന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്ത് പറ്റിയതാന്നൊന്നും അറിയത്തില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടത് ആ കുറച്ച് ക്ഷീണമൊക്കെയുണ്ട് അവൻ വീട്ടിലാണെങ്കിൽ എത്തീട്ടെയുള്ളൂ എത്തിയ ഉടനെ നെഞ്ച് ഈ അവനിപ്പോൾ ഒരു നാൽപ്പത്തി ഏഴ് വയസ്സായി അടുത്തിപ്പോൾ ഉള്ളത് ബേബി മെമ്മോറിയൽ ആ അവൻ ഓഫീസിൽ വർക്ക് ചെയ്യുകയാണ് വർക്കികിങ്ന്ന് ചോദിച്ചാൽ ഞാ ഓക്കെ മാഡം ഞാൻ അരമണിക്കൂറിനുള്ളിൽ എത്തിക്കാം ഇങ്ങനെ ആ വല്ലാണ്ട് ആ ഉണ്ട് ഉണ്ട് ഭയങ്കര എന്താ

ആ ഓക്കെ ഓക്കെ ആ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ ആംബുലൻസോ അങ്ങനെ എന്തേലും അവിടെ ഉണ്ടോ ഇപ്പോൾ നമുക്ക്

ആ ഓക്കെ ഇവിടെ വണ്ടിയൊന്നുമില്ല മാഡം അവിടുന്ന് ഒരാമ്പുലൻസ് പറഞ്ഞ് വിടുവാണെങ്കിൽ അത്രേം നല്ലത്

ആ ആ ഓ ആ ഓക്കെ ആ ആ ഇപ്പോൾ തന്നെ വേണം ആ ഞാനെന്നാൽ പെട്ടെന്ന് തന്നെ അഡ്രസ്സ് വാട്സ്ആപ്പ് ചെയ്യാം എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാം ആ ഓക്കെ എന്നാൽ